അ ഇത് കേക്കൊക്കെ ഉണ്ടാക്കുന്ന അ ഒരു കേക്ക് വേണമായിരുന്നു ഒരൂ റ്റൂ കെ ആ സ്ട്രോബെറി ഫ്ളേവറേ

ആ ഓ ലേയെർ ആയിട്ടുള്ളതും വേണം പിന്നേ ഒരു വൺ കെജിയുടെ ഒരു കട്ട് ചെയ്തു തരുന്ന കേക്കുണ്ടല്ലോ അതിനായിട്ടുള്ള അപ്പം അതും വേണം പിസ്താ പിസ്ത കിട്ടുമോ ആ ഓക്കെ നോർമൽ ആയിട്ട് കട്ട് ചെയ്യുന്നത് ബർത്ഡേ ഫങ്ങ്ഷൻ വേണ്ടിയിട്ടായിരുന്നു ആം അപ്പം കട്ട് ചെയ്യുന്നതിൽ ഒന്നും എഴുതേണ്ട അപ്പം ലേയറിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം ഒന്നു കൊടുത്താൽ മതി അ

സ്പെഷ്യലായിട്ട് ഒന്നും വേണ്ട പതിനാലാം തിയ്യതിയിലേക്ക് വേണ്ടിയിട്ടാണ് ആ അപ്പോൾ ഡെലിവറി ചെയ്യുമോ ആ ഒക്കെ അപ്പം മുരിക്കാശ്ശേരി

ആ എത്രയാവും അ അ അ അ ഓക്കേ ആ അപ്പോൾ ആ ഇവിടെ എത്തുമ്പോൾ മുരിക്കാശ്ശേരി എത്തുമ്പോൾ ഞാൻ ലൊക്കെഷൻ അയച്ചു തരാം അപ്പോൾ അവിടേക്ക് എത്തിച്ചാൽ മതിയാവും

അല്ല വീടുവരെ എത്തിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് ആ ഓക്കേ ആ കുഴപ്പം ഇല്ല ആ ഓക്കേ ആ ഓക്കേ ആ ഓക്കേ ഓക്കെ കുഴപ്പം ഇല്ല അത് ആ ഓക്കേ വേറെ ഒന്നുമില്ല ഇത്രത്തിൻ്റെ ഒരു എത്ര ആവുമെന്നും ഒക്കെ ഒന്നു അയച്ചാൽ മതിയാവും

ആ ലൊക്കേഷനൊക്കെ അയക്കാം